യുവാക്കൾ നേരിടുന്ന തൊഴിലില്ലായ്മ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഒത്തിരി പഠിച്ചിട്ടും വളരെ നല്ലരീതിയിൽ പഠിച്ചിട്ടുപോലും ജോലിയില്ലാതെ നിൽക്കുന്ന ഒത്തിരി യുവാക്കളുണ്ട് ഒത്തിരി കാരണം ഇന്നത്തെ യുവ യുവതലമുറ കഷ്ടപ്പെടാനുള്ളയൊരിതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവർക്ക് ഈ ഇന്നത്തെക്കാലത്തെ തലമുറയെന്ന് പറയുമ്പോൾ അവർക്ക് പൈസ അവരെങ്ങനെയെങ്കിലും എന്ത് ജോലി ചെയ്യാനും ചിലത് ചില ആൾക്കാർ തയ്യാറാകും പക്ഷെ ചിലർ കൂടുതലും മടിയിലേക്ക് മടി മടിയന്മാരായിട്ടാണ് പിന്നെ കൂടുതലും ഇപ്പം ലഹരിയുടെ പിടിയിലാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ യുവതലമുറ തലമുറതന്നെ ലഹരിയുടെ പിടിയിലാ കാരണം ഏതൊക്കെ രീതിയിൽ വളരെയധികം രീതിയിൽ ഇപ്പം ലഹരിയുൽപ്പന്നം ലഹരി ഉപയോഗം അവർ അവരിലേക്ക് എത്തുന്നുണ്ട് പല പലരീതിയിലും അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ കുറേപ്പേർ അങ്ങനെയിതായിപ്പോകുന്നുണ്ട് ആ രീതിയിലേക്ക് ലഹരിയിലേക്കടിമപ്പെട്ട് പോകുന്നുണ്ട് കുറേയധികം യുവാക്കൾ പിന്നെ പഠിച്ചിട്ടും ഒത്തിരി അതിൻ്റെതായിട്ടുള്ളയിത് ചെയ്യാൻ നമുക്കില്ല പക്ഷെ അതിൽ നമ്മുടെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ് വാസ്തവം കാരണം നമ്മുടെ സർക്കാരൊരു നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി ഒരു പുതിയൊരു ജോലി സാധ്യതയെക്കുറിച്ച് ഒരു തീരുമാനങ്ങളെടുത്തിട്ടില്ല എടുക്കാം അല്ലെങ്കിലങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നവർ പറയുന്നുണ്ടെന്നുള്ളതല്ലാതെഅവർ ഒന്നും ചെയ്യുന്നില്ല ഒരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല അത് തൊഴിലവസരങ്ങൾ സൃഷ്ട്ടിക്കാൻ സർക്കാർ മുൻകൈയ്യെടുക്കണം കാരണം കാരണം യുവതലമുറ വളർന്ന് വരേണ്ട തലമുറയാണ് അവരാണ് ഇനി ഇനിയുള്ള ഓരോ ചുവടുകളും അവരിലൂടെ നമ്മൾ നമ്മൾ നമ്മുടെ പുതിയൊരു ലോകം പുതിയൊരു രീതി കാണാനായിട്ടിരിക്കുന്നതാണ് നമ്മുടെയോരോ പഴയ തലമുറ അപ്പം ആ ഒരു പുതിയ തലമുറ യുവാക്കൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടുന്ന യുവാക്കൾ നല്ലരീതിയിൽ വിദ്യാഭ്യാസം കിട്ടുകയും ചെയ്യണം നല്ല രീതിയിൽ ആ വിദ്യഭ്യാസത്തിലൂടെ നല്ല ജോലിയിലേയ്ക്ക് പ്രവേശിക്കുകയും ചെയ്യും പ്രവേശിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം